ഫോട്ടോഗ്രാഫി എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചുപറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ചെറുപ്പം മുതലേ ആ ഒരു ഫോണിനോ അങ്ങനെ ഫോണൊന്നും നമുക്ക് വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോഗ്രാഫി അതിൻ്റെ അടുത്താണെങ്കിലും അവരെ കണ്ട് അവരെ അവരെ നോക്കി അവരിങ്ങനെ ഓരോ പോസ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ കണ്ട് പഠിച്ച് ഫസ്റ്റ് കണ്ട് പഠിച്ചായിരുന്നു പിന്നെ എൻ്റെ ആ ഒരു ലെവലൊക്കെ എത്തിയപ്പോൾ ഒരു ടെൻത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ കരിയർ എന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോഗ്രാഫീനെ ചൂസ് ചെയ്തത് ഇപ്പോൾ നല്ലപോലെ വർക്ക് വർക്കുകളൊക്കെ കിട്ടാൻ തുടങ്ങുന്നുണ്ട് എനിക്ക് അത് ഒരു എൻ്റെ ഒരു പാഷൻ തന്നെ ആണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയണത് നമ്മള് മനസ്സ് അറിഞ്ഞു എടുക്കുമ്പോഴല്ലേ ആ ഒരു വർക്ക് നമ്മളില് പൂർണമായിത്തീരുന്നത് അപ്പോൾ അതുപോലെത്തന്നെയാണ് ഇതും എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും എൻ്റെ ആ കരിയർ ഞാൻ ഇന്നേവരെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഫോട്ടോഗ്രഫിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചെറുപ്പം മുതലേ അമ്മ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചൊരു ഒരു പാഷൻ തന്നെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയണത് അപ്പോൾ ഇതുവരെ എത്താൻ സാധിച്ചു എന്നാണ് മെയിനായിട്ട് പറയാൻ ഉള്ളത് കാരണം ആ ഒരു ചെറുപ്പം മുതലേ നമ്മള് പഠിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാം അറിയാല്ലോ നമ്മൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒക്കെ അറിയാവുന്നതുകൊണ്ടുതന്നെ ചെറുപ്പം മുതലേ ആ ഒരു അതിനെ ഒക്കെ മറികടന്ന് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിന് അനുസരിച്ചല്ലേ നമ്മൾ നിൽക്കാറുള്ളു അത് തന്നെയായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എനിക്ക് ഇന്നോളം ഞാന് ഒരു പാഷൻ കണ്ടു പിടിച്ചിട്ടുണ്ടങ്കിൽ അത് ഫോട്ടോഗ്രാഫി തന്നെ ആയിരിക്കും